ഹലോ വൈദ്യുതി ബോഡല്ലെ ആ ഞാൻ വിളിച്ചത് എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് വീട് മാറിയായിരുന്നു അപ്പം എന്റെ മേൽവിലാസവും എന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം ഒന്ന് മാറ്റണമായിരുന്നെ ആ ഞങ്ങൾ മഞ്ഞാടിയിലോട്ടാണ് മാറിയത് ആ അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റണമായിരുന്നു ആ ഞാനെന്റെ മേൽവിലാസം പറഞ്ഞു തരാം അതൊന്ന് എഴുതിയേക്കാമോ അതൊന്ന് മാറ്റാമോ ആ അപ്പം വീട്ടു പേരെന്ന് വരുന്നത് മുന്നനാട്ടുശ്ശേരി ഹൗസ് ആ മഞ്ഞാടി പി ഒ പത്തനംതിട്ട ആ എന്റെ ഇമെയിൽ ഐ ഡി ശിവാനി ശിഖ ആറ് ഒന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആ ശിവാനി ശിഖ ആറ് ഒന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം പിന്നെ ആ ഫോൺ നമ്പറ് ആ ഫോൺ നമ്പറെഴുതിയെടുത്തൊളൂ എട്ട് ഒന്ന് ആ രണ്ട് ഒമ്പത് ഏഴ് പൂജ്യം രണ്ട് നാല് രണ്ട് ഏഴ് ആ ആ ഇത് മാറ്റിയേക്കണെ ആ ശരി ശരി ആ ഓക്കെ ആ ശരി